ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ഭജന ട്രൂപ്പുണ്ട് സാധാരണ ഗതിയിൽ ഭജനകൾ നടത്തുന്നതിന് മുൻപേ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിലും ഒരു മണ്ഡപത്തിലാണവർ ഒത്തുകൂടാറുള്ളത് പിന്നെ ഓരോ ആഴ്ചയിലുള്ള ശനിയാഴ്ചകളിലും അവർ ഭജന ഭക്തജനങ്ങൾക്കായി പാടിക്കേൾപ്പിക്കാറുമുണ്ട് അവർ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ തബല ചിഞ്ചില്ലം ഹാർമോണിയം എന്നിവയാണ്